ആ പറഞ്ഞുകൊള്ളൂ അതെ അതെ ഉണ്ട് ഉണ്ട് ഈഹ് ബ്രോ നമ്മുടെയൊരു ആപ്പ് ഉണ്ടായിരുന്നു തേയിലയുടെ അത് അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിന്റെയകത്ത് ബ്രോ ഓർഡര് ചെയ്താല് മതി ആ നമുക്ക് ചെയ്യാം അത് ആദ്യമെ നമ്മള് പ്ലേസ്റ്റോറില് പോയിട്ട് ടെയില്എയെന്ന് അടിച്ചുകൊടുക്കണം അപ്പം ഐഫോണാണല്ലെ എങ്കില് ആപ്പ് സ്റ്റോറില് കിട്ടും ആപ്പ് സ്റ്റോറില് ആപ്പ് സ്റ്റോറില് കിട്ടും അവൈലബിളാണ് ഓക്കെ ആപ്പ് സ്റ്റോറില് പോയിട്ട് നമുക്ക് ഇത് അടിച്ചുകൊടുക്കുക ടെയില്എയെന്നും പറഞ്ഞ് അപ്പം നമുക്കൊരു ഒരു ആപ്പ് വരും അത് ഡൗൺലോഡ് ചെയ്യുക അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ഫോൺ നമ്പറൊക്കെ വെച്ച് ലോഗിൻ ചെയ്യണം ഫോൺ നമ്പറോ മെയില് ഐ ഡി മെയില് ഐ ഡി ഉണ്ട് മെയില് ഐ ഡി വേണ്ട ഫോൺ നമ്പര് മതി ഫോൺ നമ്പര് വെച്ച് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തിട്ട് നമ്മുടെ അവൈലബിളായിട്ടുള്ള എല്ലാ ഫുഡിൻ്റെയും ഫോട്ടോയും കാണും പ്രൈസും കാണും അതിൽനിന്നും ഏതെങ്കിലും ഇഷ്ടമുള്ള ഫുഡ് ബ്രോ ക്ലിക്ക് ചെയ്യുക അന്നേരം ഓർഡർ നൗ എന്നുപറഞ്ഞ് കാണിക്കും അപ്പം ഓർഡര് പ്ലെയ്സ് ചെയ്യുക പ്ലെയ്സ് ചെയ്യുക ബ്രോയുടെ ലൊക്കേഷൻ ലൊക്കേഷൻ ആക്സസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുണ്ട് അതൊക്കെ എനേബിളാക്കുക കറൻറ്റ് ലൊക്കേഷൻ ലൈവ് ലൊക്കേഷൻ നമുക്ക് അത്ര അപ്ഡേറ്റായിട്ടില്ല കറൻറ്റ് ലൊക്കേഷൻ അങ്ങനത്തെ ബ്രോ എന്നിട്ടു ഓർഡര് പ്ലെയ്സ് ചെയ്യുക ഫണ്ട് ആ ക്യാഷ് ഓൺ ഡെലിവെറി ഉണ്ട് മറ്റേ പ്രീപെയ്ഡുമുണ്ട് ബ്രോയ്ക്ക് ഇഷ്ടമുള്ള രീതിയില് അയക്കാം ഓ സേഫാണ് സേഫാണ് സാറേ ഓ അതെ അതെ അതെ ഇല്ല ഇല്ല അങ്ങനെ അങ്ങനെയൊന്നും വരില്ല നമുക്ക് കറക്റ്റായിട്ട് ഓർഡര് പ്ലെയ്സ് ചെയ്യുകയാണെങ്കില് അവിടെത്തന്നെ നമ്മുടെ ഡെലിവറി ബോയ് എത്തുന്നതാണ് കൊറിയർ എത്തുന്നതാണ് ഉറപ്പായിട്ടും എൻ്റെ പേര് എൻ്റെ പേര് ശിവൻ ആ ബ്രോയുടെ ബ്രോയുടെ പേര് പറയുന്നു കേശവ് ഓക്കെ ഓക്കെ എ ആ അല്ല ബ്രോ ഡൗൺലോഡ് ചെയ്തോ ചെയ്തായിരുന്നുവല്ലെ ഓ ഓക്കെ ഓക്കെ ആ ആ അതെ ഇത് നമുക്ക് ഇപ്പം ആ അതെ അതെ

അ അപ്പോള് ബ്രോ ഓർഡർ ചെയ്യില്ലെ ഫുഡ് ഓർഡര് ചെയ്യില്ലെ ബ്രോയ്ക്ക് ഇഷ്ടമുള്ള ഫുഡേതാണ് അൽഫാം ഓക്കെ ഓക്കെ ബ്രോ ഇപ്പോള് എവിടെയാണ്

ഓ അപ്പം ഓക്കേ ഓക്കെ ഓക്കെ ബ്രോ അപ്പം ബ്രോയുടെ കറൻറ്റ് ലൊക്കേഷനും കൂടെ ആഡ് ചെയ്തിട്ടിട്ടാല് മതി നമ്മളൊരു പത്ത് മിനിറ്റ് മാക്സിമം മാക്സിമം പതിനഞ്ച് മിനിറ്റ് അതിനപ്പുറം അതിനപ്പുറം പോകില്ല അതിനുമുമ്പ് നമ്മള് ഡെലിവറി ചെയ്യും

ആ ഓക്കെ ഞങ്ങളെ വിളിച്ചതിന് നന്ദി ഓക്കെ ഓക്കെ ബ്രോ ഓക്കെ ഓക്കെ